ഐ ആം ഹാപ്പി വിത്ത് മൈ കിച്ചൺ അപ്പ്ളൈൻസസ് ലൈക് ഹോമേഴ്സ് ഞാനിവിടുന്ന് ഫ്രിഡ്ജ് ഫ്രിഡ്ജാണെങ്കിൽ പോലും ഫ്രിഡ്ജ് നല്ല ഹെല്പ്ഫുള്ളാണ് എന്താണ് പറയുക അതിനകത്ത് നല്ല കൂളിംഗ് കിട്ടുന്നുണ്ട് നല്ല നല്ല രീതിക്ക് തന്നെ നമ്മൾ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൂളിംഗ് കിട്ടുന്നുണ്ട് നമ്മുടെ ആ ഫ്രീസർ ടൈപ്പാണെങ്കിലും ഫ്രിഡ്ജ് ടൈപ്പാണെങ്കിലും നമുക്ക് ഒരു ഫുഡിനും ഒരു കുഴപ്പവും വരുന്നില്ല ഫുഡ് കേടാവുക അതേപോലെ ഹെൽത്ത് ഇഷ്യുസൊന്നും വരുന്നില്ല മിക്സീന്റെ കാര്യമാണെങ്കിൽ പോലും മിക്സി നല്ലതായിട്ട് വർക്കിങ്ങാവുന്നുണ്ട് സാധാരണ മിക്സി എന്നുവച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ ആവുമ്പോഴേക്കും നന്നായിട്ട് കേടാവുമായിരുന്നു ഈ മിക്സി നന്നായിട്ടു വർക്കാവുന്നുണ്ട് അത് നല്ല നന്നായിട്ട് അരയുക അതേപോലെ നന്നായിട്ട് കട്ടി കട്ടിയിൽ നിൽക്കാനായിട്ടാണ് നമ്മൾ വാങ്ങിയത് അപ്പം നല്ല ഫെസിലിറ്റീസ് ഉണ്ട് അതിനകത്ത് കാണിക്കുമ്പം അവർ നല്ല വാങ്ങുന്ന നേരത്ത് കാണിച്ച ആ കാര്യങ്ങൾ തന്നെ ഇപ്പോഴും ഉണ്ട് അതേപോലെ സ്റ്റൗവിന്റെ കാര്യത്തിലാണെങ്കിലും നന്നായിട്ട് കത്തുന്നുണ്ട് അതേപോലെ അതിന് പെട്ടന്ന് ഒരു ഇഷ്യുസൊന്നും വരികയും ചെയ്തില്ല പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും നമ്മുടെ കൂടെ എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം തന്നെ നിൽക്കുന്നുണ്ട് അതേപോലെ നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് തന്നെയാണ് ഫ്രിഡ്ജ് തന്നെ കാരണം ഫ്രിഡ്ജ് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടൊരു കാര്യമാണല്ലോ